അപ്പോൾ ഞാൻ കാണുന്നത് പലതരം സിനിമകൾ കാണാറുണ്ട് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ള സിനിമ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മലയാളം സിനിമകൾ ആണ് കൂടുതൽ ആയിട്ടും ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ന് വെച്ചാൽ മലയാളം നമ്മുടെ ഒരു മാതൃഭാഷ എന്ന് പറയുമ്പോൾ മലയാളം ആണ് അപ്പോൾ മലയാളത്തിൽ ഉള്ള സിനിമകളും കാര്യങ്ങളും ഒക്കെ കുടുതലായിട്ട് കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഇപ്പം മലയാളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ എന്ന് പറഞ്ഞാൽ സ്പടികം ആണ് സ്പടികം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കഥ എന്ന് വെച്ചാൽ അച്ഛൻ്റെ സ്വപ്നത്തിന് അനുസരിച്ച് നടക്കാത്ത ഒരു മകനെ കുറിച്ച് ആണ് ആ കഥ പോകുന്നത് അപ്പം നല്ല ഒരു പടമാണ് ഭരതൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ആണ് ഫിലിം ഡയറക്റ്റ ചെയ്തത് അപ്പം നല്ല ഒരു പടമാണ് അതിന് കുറെ കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പം രണ്ടാം ഒരു എന്താ പറയുക അതിൻ്റെ ഒരു എച് ഡി വേർഷൻ ഒക്കെ ഇപ്പോൾ തീയറ്ററുകളിൽ പ്രദർശനം നടത്തിയിട്ട് ഉണ്ടായിരുന്നു അപ്പം നല്ല രീതിയിലുള്ള ഒരു കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച ഒരു പടം ആയിരുന്നു സ്പടികം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളത് തമിഴ് സിനിമകൾ ആണ് തമിഴ് സിനിമകളിൽ ഇഷ്ടം പോലെ പടങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളത് ഉണ്ട് അപ്പം എല്ലാം ഇന്ത്യയിൽ ഒട്ടുമിക്ക പടങ്ങളും നല്ല ഭംഗിയായിട്ടാണ് അവർ എല്ലാവരും എടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം